ഞാനിപ്പം കുറേ ആൾകാർ വരുന്നുണ്ട് എന്തെങ്കിലും ഭക്ഷണം കൂടുതൽ വേണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നാളെ ഇപ്പം തലേ നാളെ ഇപ്പം കുറേ പേർ വരുന്നുണ്ടെന്നു വിചാരിച്ചോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്നാണ് ഫുഡ് ഉച്ചക്കത്തേക്കുള്ള ഫുഡ് എന്നു വരുമ്പം രാവിലത്തെ ഒന്നും ചെയ്യില്ല രാവിലെ ഇപ്പം ദോശയാണോ ഇഡിലി ഇപ്പം പെട്ടെന്നാകുന്ന ഇഡിലി പുട്ടൊക്കെയാകുമ്പോൾ നമുക്കു വേഗം അല്ലേ ഉപ്പുമാവൊക്കെ ആകുമ്പോൾ നമുക്ക് കുറേ വേഗം ഉണ്ടാക്കാം ദോശയാകുമ്പോൾ നമുക്ക് ചുട്ട് ചുട്ട് വരാൻ ഭയങ്കര താമസമായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാറില്ല ഇഡിലി അല്ലെങ്കിൽ പിന്നെ പുട്ട് അങ്ങനെന്തെങ്കിലും അല്ലെങ്കിൽ ഉപ്പുമാവ് അതങ്ങനെ എന്തെങ്കിലുമായിരിക്കും ഞാൻ വെക്കുക പിന്നെ ഉച്ചത്തേക്കാകുമ്പോൾ ഞാനെന്തു ചെയ്യുമെന്നറിയുമോ തലേന്നു തന്നെ കാളനൊക്കെയില്ലേ മോരുകറി തലേന്ന് വയ്ക്കും മീൻകറി തലേന്നുവയ്ക്കും പിന്നെ അതേപോലെത്തന്നെ പുളിയിഞ്ചി തലേന്ന് വെയ്ക്കും അങ്ങനെയുള്ള കുറച്ചു സാധനങ്ങൾ തലേന്ന് തന്നെ കട്ട് ചെയ്യും പിന്നെ വെക്കും വെച്ചു വെക്കും അതായത് തലേന്ന് നേരത്തെ ഒരു വൈകുന്നേരം ആകുമ്പോഴേക്കും വെച്ചു വെക്കും നാളത്തേക്ക് തലേന്ന് ഇന്ന് വെയ്കുകയാണെങ്കിൽ നാളെ ഉച്ചയ്ക്കുപയോഗിക്കാൻ പാകത്തിന് മോരുകറി കുറേയുണ്ടാക്കിവെക്കും അപ്പോൾ നമുക്ക് എന്താ പറയുക നമുക്ക് വേഗം പണി തീർക്കാൻ വേണ്ടിയിട്ടാണ് പാകം അത്രയും ഫുഡ് വേണമല്ലോ ഈ നമുക്ക് ബീഫ് കഴിക്കാൻ പറ്റില്ല ചിക്കൻ മട്ടൻ മീൻ പിന്നെ അങ്ങനെയുള്ള കറികൾ അപ്പം ഞാൻ എന്തു ചെയ്യും സാമ്പാർ വെക്കില്ല സാമ്പാർ ഇപ്പം സാമ്പാർ നാളെ രാവിലെ വെക്കാൻ നോക്കും എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാ അരുണും പിന്നെ കുറച്ചു പേർ വീട്ടിൽ ബാക്കി ആൾക്കാരുണ്ടല്ലോ അവരോട് ഓരോന്നിനുള്ളത് ഓരോരുത്തരോട് കട്ട് ചെയ്യാൻ പറഞ്ഞിട്ട് വേഗം വേഗം ആക്കാണ് ചെയ്യുക ഈ മോരുകറി പുളിയിഞ്ചി പിന്നെ മീൻകറി തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കും അപ്പം നമുക്കു വേഗമാകും ഉച്ചത്തേക്ക് ആ മൂന്ന് ഐറ്റം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ ചിലപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ വെജിറ്റേറിയനാണെങ്കിൽ വേറെന്തെങ്കിലും കുറച്ചു സാമ്പാറും തോരൻ അങ്ങനെയുള്ളത് വേഗം ഉണ്ടാക്കിയാൽ മതിയല്ലോ അങ്ങനെ ചെയ്യും